ആ നമസ്കാരം പറയൂ

ഓ ഏതു തരം ലോണാണ് സർ താങ്കൾക്ക് ആവശ്യം ഹൗസിംഗ് ലോൺ ആണല്ലേ അപ്പോൾ ഹൗസിംഗ് ലോൺ ഏത് വരെ എത്ര റേയ്റ്റ് എത്ര ഉദ്ദേശിക്കുന്നത് താങ്കൾ ഇരുപത്തിയഞ്ച് ലക്ഷം അല്ലെ അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏഴ് പെഴ്സെന്റേജ് ഇൻ്ററസ്റ്റിൽ ആണ് നമ്മള് ലോൺ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് താങ്കൾ താങ്കളുടെ ഡോക്യൂമെൻറ്റ് ഒറിജിനൽ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതേപോലെത്തന്നെ ഒരു ആദായം പോലെ എന്തെങ്കിലും ഒക്കെ ഒരു ഡോക്യൂമെൻറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷത്തിനോട് ഉതകുന്ന ഏതെങ്കിലും ഡോക്യൂമെൻറ്റ്സ് അത് ഇപ്പോൾ സ്ഥലമോ അത് അതല്ലെങ്കിൽ പഴയ വീടോ അങ്ങനെ എന്തെങ്കിലും അതെ ആ അത് ഈ ഈ ആ തറവാട് പൊളിച്ച് പുതിയ വീട് കെട്ടുകയാണോ അതോ വേറെ സ്ഥലത്ത് ആണോ കെട്ടണത് ആ അങ്ങനെ കെട്ടുകയാണെങ്കിൽ ഒരു ഏഴ് കൊല്ലത്തിന് ശേഷം ആണ് ആധാരം ബാങ്കിൽനിന്ന് തിരിച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ആ അത് തറവാട് തറവാട് നിൽക്കുന്ന തറവാട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആണ് പുതിയ വീട് കെട്ടണേന്ന് ഉള്ള കാര്യം ആണ് ഇപ്പോൾ പറഞ്ഞത് വേറെ വേറെ കുറച്ച് സ്കീമുകൾ ഉണ്ട് പക്ഷെ ഇത്ര ഇരുപത്തഞ്ച് ലക്ഷത്തിനുള്ള സ്കീമ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല അതിൽ കുറഞ്ഞ ഏതെങ്കിലും ആ നമ്മള് അതായത് ഇപ്പോൾ സാ സാറിന് തിരിച്ച് ലോണടവ് തിരിച്ച് ഒരു ഫ്ലോയില് അടക്കാൻ പറ്റുന്ന ലോണടവ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന എമൗണ്ട് തരാം സാറ് എന്തിലാണ് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റ് ഗവൺമെൻറ്റ് ജോബാണോ അല്ല കാറ്ററിംഗ് സർവീസ് ആണെങ്കിൽ നിങ്ങളുടെ കാറ്ററിംഗ് സർവീസിൻ്റ ഈവൻറ്റിൻ്റ അതായത് സ്ഥാപനത്തിൻ്റ നികുതി ചീട്ടോ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ കഴിഞ്ഞ ആറ് മാസത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒപ്പം ഡോക്യൂമെൻറ്റ് ആയി തരുകയാണെങ്കിൽ നമുക്ക് അത് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാം

ഓ മതി മതി മതി മതി ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റ നിങ്ങൾക്ക് തിരിച്ച് അടക്കാൻ ഉള്ള കഴിവ് നിങ്ങളുടെ കേപ്പബിലിറ്റി നിങ്ങളുടെ സ്ഥാപനത്തിന് ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് ഒന്ന് അവിടെ വന്ന് ചെക്ക് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പരിസരത്ത് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ആവശ്യം വേണ്ടി വരും ഓ വിളിച്ചോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവൈലബിളാ മാം എപ്പോൾ വേണേലും വിളിച്ചോളൂ